ഇത് അക്ഷയ അല്ലേ ആ എനിക്ക് പ്ലസ് ടുവിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് അലോട്ട്മെൻ്റ് കാണിച്ചില്ല ആ ഓക്കെ അതിന് എന്തൊക്കെയാണ് വേണ്ടത് അലോട്ട്മെൻ്റ് കിട്ടിയിട്ടില്ല അലോട്ട്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചതിന് ആ ആ ഓക്കെ ആ മാർക്ക് ലിസ്റ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അതിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ

ആ ഓക്കെ പിന്നെ ഏതൊക്കെ സ്കൂളുകൾ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുക ആ ഓക്കെ പി എനിക്ക് എട്ട് എ പ്ലസ് ആണുള്ളത്

ആ ഓക്കെ പിന്നെ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്താൻ കുറച്ച് എന്നുവെച്ചാൽ എത്ര ഡേറ്റ് ഉണ്ട് ഇത് കൊടുക്കാനുള്ളത്

എനിക്ക് കൊടുക്കേണ്ടത് സയൻസ് ആണ് സയൻസ് വേറെ കുറേ സീറ്റ് ഉള്ള സയൻസിന് കുറേ സീറ്റ് ഉള്ള ഏതാണ് സ്കൂൾ ഉള്ളത് ആ ഓക്കെ അടുത്തുള്ള സ്ഥലത്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത് ആ ഓക്കെ ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഇതുണ്ട് സ്കൗട്ടിൻറെ ഉണ്ട് പിന്നെ അതേപോലെ ആ ആ ആ എന്നാൽ ശരി എന്നാൽ അങ്ങനെയാവുമ്പോൾ അങ്ങനെ വരാം എന്നാൽ ആ ശരി ഓക്കെ ശരി